ഹലോ ഹലോ മാഡം ഹലോ ആ ഇന്ന് ബ്രേക്ക് ഫാസ്റ്റ് ആ അപ്പം ഉണ്ട് അപ്പം പുട്ട് ദോശ പിന്നെ മുട്ടക്കറി കടലക്കറി പിന്നെ ചട്നി സാമ്പാറ് ഞങ്ങളുടെ സ്പെഷ്യല് അപ്പവും മുട്ടക്കറിയുമാണ് എല്ലാവരും ഓർഡർ ചെയ്യാറ് അപ്പോൾ അത് അതെയതെ അതെയതെ അപ്പം ഒരെണ്ണം പത്ത് രൂപ ആ ആ

പാർസൽ ആയിട്ട് ആ മുട്ട നമുക്ക് താറാമുട്ടയുണ്ട് കാടമുട്ടയുണ്ട് പിന്നെ നമ്മുടെ കോഴിമുട്ടയുണ്ട്

ആ ആ ഓക്കെ മേടം അപ്പം പാർസലായിട്ടാണോ ആ ഓക്കെ അപ്പം അപ്പം എത്ര എണ്ണം വേണം നാലപ്പവും രണ്ട് മുട്ടക്കറിയും ഒരെണ്ണം താറാമുട്ടയും ഒരെണ്ണം കോഴി മുട്ടയും പിന്നെ മേടം നമുക്ക് ചായയും കോഫിയും അതൊക്കെയുണ്ട് അതൊക്കെ നമ്മള് പാർസലായിട്ട് തന്നെ വീട്ടിലെത്തിക്കും അപ്പോൾ ചായയും കോഫി ബൂസ്റ്റ് ഹോർലിക്സ് എല്ലാം ഉണ്ട് നമ്മൾ അലുമിനിയം കണ്ടെയ്നർ ആ അതെയതെ നമ്മുടെ കയ്യില് അലൂമിനിയം ഫോയിലിൻ്റെ ചെറിയ ഗ്ലാസസുണ്ട് അപ്പോൾ അതില് നമ്മള് സേഫായിട്ട് ലീക്ക് ചെയ്യാതെ എത്തിക്കും മേടത്തിൻ്റെ സ്ഥലം എവിടെയാണ് എങ്ങോട്ടാണ് എത്തിക്കേണ്ടത് പേരൂർക്കട അപ്പോൾ ഇവിടുന്ന് അടുത്തല്ലേ ഒരു രണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളൂ നമ്മൾ ആ ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ എത്തിക്കും

ആ ഗൂഗിൾ പേ ഈ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ചെയ്താൽ മതി ഇതില് അന്നമ്മ അന്നമ്മ തോമസ് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് അക്കൗണ്ടായിരിക്കും വരുന്നത് ആ അതിലോട്ട് ചെയ്താൽ മതി ആ ആ സാധനം കിട്ടിയിട്ട് ചെയ്താൽ മതി സാധനം വരുന്ന സമയത്ത് ആ ഡെലിവറി ചെയ്യുന്ന ആളുടെ മുന്നില് വച്ച് ചെയ്താൽ മതി

നമുക്കുള്ളത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് പിന്നെ നമുക്കിനി ചപ്പാത്തിയും പൊറോട്ടയും വരും അപ്പോൾ മേടം വേണം എന്ന് ഉള്ള ദിവസം ബ്രേക്ക് ഫാസ്റ്റ് വേണം എന്നുള്ള ദിവസം വിളിച്ചാൽ മതി അപ്പോൾ അന്നത്തെ സ്പെഷ്യലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ആ നമ്മുടെ ബാ

അപ്പോൾ ആ

ആ അത് കുഴപ്പമില്ല മേടം മേടം ഇതിപ്പോൾ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്ര കുട്ടികളുണ്ട് അവർക്ക് എത്രയെത്ര സാധനം എത്ര എണ്ണം വീതം വേണം എന്ന് ഈ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി ഒരു നാല് മണി കഴിഞ്ഞ് വിളിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽഡായിട്ട് എല്ലാം പറഞ്ഞു തരാം

ആ നമ്മള് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം മേടം നമ്മൾ ഇപ്പോൾ നമ്മള് സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ ഉള്ള സാധനങ്ങളാണ് ഉള്ളത് പിന്നെ ആൾക്കാര് കൂടുതലുണ്ടെങ്കിൽ നമ്മള് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാം ആ ആ ഓക്കെ മേടം ഇന്നിപ്പോൾ നോക്കിയിട്ട് ഈ നമ്പറില് വിളിച്ചാൽ മതി ഓ ഓക്കെ ശരി ആ